ഒരു ചിത്രം വരയ്ക്കുന്നതിനുള്ള പ്രക്രിയകൾ എന്ത് അതായത് പ്രക്രി പ്രക്രിയകൾ വിവരി വിവരിക്കാമോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാദ്യം ഒരു ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിൽത്തന്നെ നമ്മളാദ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പേപ്പർ എടുക്കു എടുക്കുക അപ്പോൾ ആ പേപ്പർ കാണുമ്പം തന്നെ നമുക്ക് വരയ്ക്കാൻ തോന്നണം അതായത് എന്തെങ്കിലും വരയ്ക്കാൻ തോന്നണം അത്രയ്ക്ക് വൃത്തിയായിരിക്കണം പേപ്പറ് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻസിൽ അതായത് നല്ല നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള പാകത്തിന് കൂർപ്പിച്ച് അതാ അതായത് നല്ല മൊനയൊക്കെ ആക്കിയിട്ട് വെയ്ക്കണം പിന്നെ രണ്ടു മൂന്നു തരം പെൻസിൽ ഉണ്ടല്ലോ നമ്മൾ അതായത് ലൈറ്റ് ആയിട്ടുള്ളത് ഡാർക്ക് ആയിട്ടുള്ളത് അങ്ങനത്തെ പെൻസിലുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ആ പെൻസിലുകളൊക്കെ നമ്മൾ എടുക്കുക അതൊക്കെ നമ്മുടെ അടുത്ത് വെക്കുക പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബറ് റബ്ബറ് നിർബന്ധമാണ് പിന്നെ കട്ടറ് കട്ടറ് റബ്ബറ് പെൻസില് പേപ്പറ് ഇപ്പം പേപ്പർ നമ്മൾ ചെറുതായിട്ട് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എടുക്കാൻ വേണ്ടി വേറെ പേപ്പർ എല്ലാം അടുത്ത് തന്നെയായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് എടുക്കാൻ പോകുമ്പം നമുക്ക് ചിലപ്പോൾ അതിനൊരു അതായത് നമുക്കൊരു ചടപ്പ് തോന്നും പിന്നെ എടുക്കാൻ പോകണ്ടേ എന്നൊരു ചടപ്പ് തോന്നും അപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രം വരയ്ക്കാൻ ഏതെങ്കിലും ഓൺലൈൻ ഓഫ് ലൈൻ ഉറവിടങ്ങൾ ലഭിക്കാറുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ട് ഞാനിങ്ങനെ ചിത്രമൊക്കെ വരയ്ക്കാൻ നോക്കുമ്പം നമ്മൾ കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യും അതായത് ഓരോ ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കണം എങ്ങനെ തുടങ്ങണം എങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ഓരോന്ന് ഇതാക്കണം അപ്പം അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം അങ്ങനെയുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതായത് നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കണം നമുക്കിപ്പോൾ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ തന്നെ യൂട്യൂബിൽ ഇപ്പം പലതരം അതായത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനുള്ള പലതരം വഴികളൊക്കെ അവർ തന്നെ കാണിച്ചു തരും അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അതായത് വരയ്ക്കാനൊക്കെ വളരെ സുഖമാണ് കാരണം നമ്മൾ നമുക്ക് വരയ്ക്കാൻ പഠിക്കാനൊക്കെ സാധിക്കും അങ്ങനെയാവുമ്പം ഞാൻ വരച്ചൊരു ചിത്രം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അടി അടുത്തിടെ വരച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ യൂട്യൂബ് നോക്കീട്ട് അതിലൊരു പക്ഷി കാക്ക പറന്നു പോകുന്നതായിരുന്നു വരച്ചത് ഞാനത് അതായത് കാക്ക പറന്നു പോകുന്നത് പോലെ തന്നെയായിരുന്നു അപ്പോൾ ഞാനത് യൂട്യൂബിൽ ഒരു വീഡിയോ അതായത് വീഡിയോ നോക്കിയിട്ടാണ് വരച്ചത് അവർ പറഞ്ഞേനനുസരിച്ച് വരച്ചു അത് ഞാനത് വിജയിക്കുമെന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ എന്താന്നറിയില്ല അത് നല്ലോണം വിജയിച്ചു നല്ല അടിപൊളി ആയിട്ട് വരച്ചു അടിപൊളിയായിട്ട് എനിക്ക് വരയ്ക്കാൻ സാധിച്ചു അതെനിക്ക് വലിയൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നു